ഹലോ എനിക്ക് ഇത് റസ്റ്റോറൻറ്റല്ലേ റസ്റ്റോറൻറ്റാണോ അതോ നിങ്ങളുടെ വീടാണോ നിങ്ങൾ റസ്റ്റോറൻറ്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ അതോ കാറ്ററിംഗ് സർവീസ് മാത്രമേ ഉള്ളോ ആ അതെ അല്ലേ ആ അപ്പം ഞാൻ വിളിച്ചതേ എനിക്കേ ഒരു എനിക്ക് ഈ വരുന്ന ഇരുപതാം തീയതിയിലേക്ക് ഒരു ഇരുപത്തിയഞ്ച് പേർക്ക് ഫുഡ് വേണമായിരുന്നു അപ്പം ഒരു മാമോദീസ പ്രോഗ്രാമിനു വേണ്ടിയിട്ടാണ് അപ്പം അത് എങ്ങനെയാണ് നിങ്ങൾക്കതിൻ്റെ ഓർഡറുകൾ നിങ്ങൾ സ്വീകരിക്കുന്നത് ഒന്ന് എന്നോടൊന്നു പറയാമോ അതുപോലെ തന്നെ നമ്മുടെ എന്തൊക്കെ ഉണ്ട് നിങ്ങളുടെ പ്ലേറ്റ് നിങ്ങളുടെ ഡിഷ്ഷിൻ്റെ റേറ്റ് എത്രയാണ് ഡിഷ്ഷിൽ എന്ത് എത്ര ഐറ്റംസ് കറികളുണ്ട് എന്നൊക്കെ എനിക്കൊന്നറിയണമായിരുന്നു നമ്മൾ നമുക്ക് ഈ ഇരുപത് ഇരുപത്തിയഞ്ച് പേർക്കുള്ള ഇതിൽ കറികൾ ബി നമുക്ക് ബീഫ് വേണം അതുപോലെതന്നെ മീൻകറി വേണം മീൻ ഫ്രൈ വേണം തോരൻ അച്ചാർ അവിയൽ മോര് അപ്പം അങ്ങനെ ഇ ഇത്രയാണ് നമുക്ക് മെയിനായിട്ടുള്ളത് ഇതല്ലാതെ നിങ്ങൾ വേറെന്തെങ്കിലും കൂടി ആഡ് ചെയ്യുമോ എന്നൊക്കെ എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു അതുപോലെ നിങ്ങളുടെ നിങ്ങളുടെ ലൊക്കേഷൻ എവിടാ നിങ്ങളുടെ ലൊക്കേഷൻ എനിക്കൊന്ന് ഇട്ടു തരാർന്നേ കൊള്ളാമായിരുന്നു ഞാൻ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടാണ് നിങ്ങളുടെ ഈ ഫോൺ നമ്പർ തന്നതും നിങ്ങളെ വിളിക്കാനായിട്ട് ഞാൻ തയ്യാറായതമ്മ് കാരണം നിങ്ങളെ കുറിച്ചുള്ള ഒരു നല്ലഭിപ്രായം പുറത്തുണ്ട് നല്ല ഫുഡ്ഡാണ് നിങ്ങളുടെ കാറ്ററിംഗ് സർവീസ് നല്ലതാണ് എന്നുള്ള ഒരു സർ അഭിപ്രായം ഉള്ളതുകൊണ്ടാണ് ഞാൻ വിളിച്ചത് അപ്പം എനിക്ക് റസ്റ്റോറൻറ്റിൽ നിന്ന് നിങ്ങൾ ഭക്ഷണം കൊണ്ട് ഇവിടെ തരുവാണോ ചെയ്യുന്നത് അതോ ഞങ്ങൾ വണ്ടി വിടണോ എടുക്കാനായിട്ട് അന്ന് അത് അത് തന്നെ ഡേ ഫുൾ ഡേ നിങ്ങളിത് തുറന്നു പ്രവർത്തിക്കുന്നുണ്ടോ അതോ ഓർഡറുകൾ കിട്ടുമ്പോൾ മാത്രമേ നിങ്ങൾ പ്രവർ ഇതിൻ്റെ പ്രവർത്തനം ഉള്ളോ എങ്ങനെയൊക്കെയാണെന്നൊന്ന് അറിയണം പിന്നെ പ്രത്യേകിച്ച് നിങ്ങളുടെ കോൺടാക്ട് സർവീസ് കോണ്ടാക്ട് നമ്പർ എനിക്കൊന്നു തരണം കാരണം എന്നോടത് പ്രത്യേകം ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് എൻ്റെ റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ ആയിട്ടുള്ള ആളുകൾക്ക് നിങ്ങളെ കുറിച്ചുള്ളൊരു മതിപ്പുണ്ട് അപ്പം നിങ്ങൾക്ക് ഒരു നല്ല ഒരു ബിസിനസ് സർവീസ് എനിക്കു പിടിച്ചു തരാനും പറ്റും നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങളെ ബന്ധപ്പെടാനുള്ള ഒരു ഫോ ഫോൺ നമ്പർ ലൊക്കേഷൻ ഇതൊക്കെ എനിക്കതൊന്നിട്ടുതരണം അതുപോലെതന്നെ നിങ്ങൾക്ക് ഓൺലൈനിൽ നിങ്ങൾ ഉണ്ടോ ഓൺലൈൻ ഷോപ്പിംഗ് പർച്ചേസിംഗ് ഉണ്ടെങ്കിൽ അത് ഒന്ന് പറയണം കാരണം നമുക്ക് ഫുഡ്ഡുകളൊക്കെ ആവശ്യം വന്നാൽ ഓർഡർ ചെയ്താൽ നിങ്ങൾ വീട്ടിൽ എത്തിച്ചു തരുമോ അതിനെക്കുറിച്ചൊക്കെ എനിക്ക് അറിയാൻ ഒരു താത്പര്യം ഉണ്ടായിരുന്നു അതാണ് അപ്പം എനിക്ക് എനിക്കേറ്റവും അത്യാവശ്യമായിട്ട് അറിയേണ്ടത് നിങ്ങൾ എനിക്ക് ഇരുപത്തിയഞ്ച് ഇരുപതാം തീയതി സോറി ഇരുപതാം തീയതി തരുന്ന ഇരുപത്തിയഞ്ച് പേർക്കുള്ള ഫുഡ് എറ്റവും ഗ്രാൻഡ് ഫുഡ്ഡായിരിക്കണം അത് അതിനകത്തുള്ള കൺടെൻറ്റുകൾ കറികൾ ഒക്കെ എത്ര എന്ത് ഒക്കെയാണെന്നുള്ളതിൻ്റെ ഒരു മെനു എനിക്കു തരണം അതുപോലെതന്നെ അതിൻ്റെ ഒരു ഡിഷ്ഷിൻ്റെ വില ഇത്രയും കാര്യങ്ങളൊക്കെ എനിക്ക് ഒന്ന് തന്ന് തരണം അതുപോലെ നല്ല ഫുഡ്ഡായിരിക്കണം ആരും ഒരു കംപ്ലയ്ൻറ്റും ഒന്നും പറയാൻ പാടില്ല